ഞാൻ പരീക്ഷിച്ചു നോക്കിയ ഏറ്റവും വെല്ലുന്ന പാചകം ചിക്കൻ കറിയായിരുന്നു കാരണം ചിക്കൻ കറി എല്ലാം ഒരുപോലെ ക്രമത്തിന് വരണം ഒരു മസാല അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആ കറി ഇല്ലാതാകും ആ അനുഭവത്തിൽ നിന്നും പഠിച്ചത് ഒരു കറി നമ്മൾ ആദ്യമായിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യവും നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു കറി വയ്ക്കാവൂ ഇതാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം